ആ പറഞ്ഞോ പറഞ്ഞോ ആ അതെ അതെ അതെ ആ അവൾ കുഴപ്പം ഒന്നും ഇല്ല പറഞ്ഞ് കൊടുക്കുന്ന സ്റ്റെപ്പ്സ് ഒക്കെ പെട്ടെന്ന് തന്നെ ക്യാച്ച് ചെയ്യുന്നുണ്ട് കുഴപ്പം ഒന്നും ഇല്ല ആ ഞങ്ങൾ ഇവിടെ മന്ത്ലി ഫൈവ് ഹൺഡ്രഡ് വെച്ചിട്ടാണ് മേടിക്കുന്നത് അപ്പോൾ മന്ത്ലി ഒരു മാസത്തിൻ്റെ അവസാനം ഫൈവ് ഹൺഡ്രഡ് കുട്ടിയുടെ കയ്യിൽ കൊടുത്ത് വിട്ടാൽ മതി അത് നമ്മൾ കലോത്സവത്തിന് നമ്മൾ മെറ്റീരിയൽസ് ഒക്കെ വാങ്ങിച്ചിട്ട് അത് പറയാം ചിലപ്പം തൗസൻഡ് ഫൈവ് ഹൺഡ്രഡിന് മണ്ടയ്ക്ക് വരുമായിരിക്കും ആ ആദ്യം ഇത്തിരി വികൃതി ഒക്കെ ആയിരുന്നു പിന്നെ പറഞ്ഞ് കൊടുക്കുന്നത് എല്ലാം അവൾ പെട്ടെന്ന് മനസ്സിലാക്കി എടുക്കുന്നുണ്ടായത് കാരണം കുഴപ്പം ഇല്ല പറഞ്ഞാൽ അടങ്ങി ഒക്കെ ഇരി ഇരിക്കുന്നുണ്ട് എല്ലാവരും ആയിട്ട് നല്ല കൂട്ടാണ് ഓ ആ ഞാൻ പറയുന്നുണ്ട് വീട്ടിൽ പ്രാക്ടീസ് ഒക്കെ ചെയ്യണം എന്നാലേ നമുക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്ത് എടുക്കാൻ പറ്റുള്ളൂ എന്ന് പറയുന്നുണ്ട് അപ്പം പറയുന്നുണ്ട് പുള്ളി ഞാൻ വീട്ടിൽ പോയി ചെയ്യുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് ആ അവൾ കളിക്കുന്ന ഒരു വീഡിയോ അയച്ചുതരാമോ കലോത്സവത്തിൻ്റെ പ്രാക്ടീസ് ഒക്കെ എങ്ങനെയുണ്ടെന്ന് നോക്കാനായിരുന്നു

ആ അപ്പം സൺഡേ ഒരു ഫൈവ് തേർട്ടി രാവിലെ ഫൈവ് തേർട്ടിക്കും പിന്നെ വൈകുന്നേരം ഒരു സിക്സ് ഒ ക്ലോക്ക് ആവുമ്പോഴും വിട്ടേക്ക് അത് ഡാൻസ് അല്ലേ അപ്പം നമുക്ക് കുറച്ച് കാല് വേദന ഒക്കെ വരും അപ്പം അത് പ്രാക്ടിസിലൂടെ ഒക്കെ മാറുള്ളൂ കുറേ ചെയ്ത് ചെയ്ത് വരുമ്പോഴത്തേക്ക് ഒക്കെ മാറിക്കോളും പിന്നെ കലോത്സവത്തിന് നമ്മൾ ഡ്രസ്സിൻ്റെ കളർ ഒന്ന് ചൂസ് ചെയ്യണമായിരുന്നു അപ്പം എല്ലാവരും പാരൻറ്സും ആയിട്ട് ആലോചിച്ചിട്ട് പറയാൻ പറഞ്ഞു ഞങ്ങൾ ഇവിടുന്ന് റെഡും ബ്ലൂ ആണ് പറഞ്ഞിരിക്കുന്നത് അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും അത് ആപ്റ്റ് ആണോ എന്ന് നോക്കുക ആ ഞാൻ അത് വാട്ട്സാപ്പിൽ സെൻഡ് ചെയ്തിരിക്കാം അതിൻ്റെ പിക്ച്ചർ അപ്പം നിങ്ങൾ നോക്കിയാൽ മതി

ആ ആ ശരി ശരി